താങ്കളുടെ ജോലി ഒരു ബ്യൂട്ടീഷൻ എന്നാണല്ലോ അപ്പോൾ താങ്കളുടെ ജോലിയിൽ താങ്കൾക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സർവ്വീസ് എന്താണ് അതുമാത്രമല്ല അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്ന് വിവരിക്കാമോ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സർവ്വീസ് ഫേഷ്യലാണ് സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു സർവ്വീസാണത് ഫേഷ്യൽ അതിൻ്റെ പ്രൊസീജ്യർ വന്നിട്ട് ആദ്യമേ ക്ലൈൻ്റിനെ കംഫേർട്ടായിട്ട് കിടത്തുക കൺസൾട്ടേഷൻ നടത്തുക അവരുടെ സ്കിൻ ടൈപ്പ് ചെക്ക് ചെയ്യുക അവരോട് സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് അവരുടെ ആവശ്യം അവർ ഫേഷ്യലുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കൺസൾട്ടേഷൻ നടത്തിയതിനുശേഷം എൻ ഫേഷ്യല് ഫേഷ്യല് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സും അവർക്ക് പറഞ്ഞുകൊടുക്കുക അതിനുശേഷം ക്ലൈൻ്റ് കംഫേർട്ടബിളാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ പ്രൊസീജ്യറ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വാട്ടർ ക്ലൻസിങ്കിൽ നിന്നാണ് തുടങ്ങുന്നത് ആദ്യമേ ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുന്ന ക്ലൈൻ്റ് ആയിരിക്കും സൊ ആദ്യമേ അവരുടെ സ്കിന്നൊക്കെ എന്നാൽ ഓയിലും ഡേട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക ആദ്യം ഒരു കോട്ടൺ പാഡ് വച്ച് വാട്ടർ ക്ലൻസിങ്ങ് ചെയ്യാം അതിനുശേഷം ക്ലൻസർ ഉപയോഗിച്ച് മേക്കപ്പ് ക്ലൻസിങ്ങ് കഴിഞ്ഞതിനുശേഷം ഡീപ്പ് ക്ലൻസിങ്ങ് ചെയ്യാം ഡീപ്പ് ക്ലൻസിങ്ങ് ചെയ്യുന്നതോടെ സ്കിന്നിലുള്ള ഓയിലും ഡേട്ടും ഡെസ്റ്റും പൊടിയെല്ലാം പോകുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിലെ പോർസിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് നല്ലൊരു ഡീപ്പ് ക്ലൻസിംങ്ങ് കിട്ടുന്നതായിരിക്കും അതിനുശേഷം ക്ലൈൻ്റിനെ ഒന്ന് ടവലൊക്കെ വെച്ച് ഫെയ്സൊക്കെ ഒന്ന് നല്ലപോലെ വൈപ്പ് ചെയ്ത് റിലാക്സേഷൻ കൊടുത്തതിന് ശേഷം അവർക്ക് എക്സ്ഫൊല്ലേഷൻ കൊടുക്കണം ഒരു നല്ലൊരു സ്ക്രബ്ബ് ഉപയോഗിച്ചിട്ട് നെക്കും ഫേസും ഫുള്ളായിട്ട് സ്ക്രബ്ബ് ചെയ്യുക സ്ക്രബ് ചെയ്യുന്നതോടെ നമ്മുടെ ഡെഡ് സ്കിന്നും ഡെഡ് സെൽസും എല്ലാം റിമൂവ് ആവുന്നതായിരിക്കും അതോടെ ഈ കോമിഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഓയിൽ സെക്രീറ്റ് ആവുന്ന പാർട്സിൽ നല്ല പോലെ എക്സ്ഫോലിയേറ്റ് ചെയ്ത് നല്ലപോലെ എക്സ്ഫോലിയേറ്റ് ചെയ്ത് അതിനെ വൈപ്പ് ചെയ്തു കളയുക അതിനുശേഷം സ്റ്റീം കൊടുക്കണം സ്റ്റീമ്മ് കൊടുക്കുമ്പം എക്സ്ഫോലിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡെഡ് സ്കിന്നും എല്ലാം മാറിയിട്ട് ഷെഡ് ഔട്ടായി വരുന്ന സ്കിൻ എല്ലാം പോയിട്ട് ഒന്ന് സ്കിന്ന് ക്ലിയർ ആവും പോർസോക്കെ കുറച്ചൊന്ന് ലൂസ് ആവും പിന്നെ സ്റ്റീമും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പോർസൊക്കെ ഒന്ന് ഓപ്പണായി വരും ആ സമയത്ത് നമുക്ക് എക്സ്ട്രാക്ഷൻ ഈസി ആയിരിക്കും എന്നിട്ട് ഈ സ്കിന്നിനുള്ള എക്സ്ട്രാ ഓയിൽസ് അതായത് കോമിഡോസ് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒരു കോമിഡോ റിമൂവർ വച്ച് പതുക്കെ അവർക്ക് പെയിനില്ലാത്ത രീതിയിൽ പതുക്കെ പതുക്കെ സ്റ്റീം കൊടുത്തുകൊണ്ടുതന്നെ എല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തതിനുശേഷം ആ പോർസ് എല്ലാം ഓപ്പൺ ആയിരിക്കും അപ്പോൾ അടുത്ത പ്രോഡക്റ്റ് കൊടുക്കുന്നതിനു മുമ്പായിട്ട് ആ സ്കിന്നിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വിടണം ടോണർ ഉപയോഗിച്ച് ടോണർ അപ്ലൈ ചെയ്ത് ആ പോർസ് ഒക്കെ ഒന്ന് ക്ലോസ് ആക്കുക ടോണർ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഓപ്പൺ ആയ പോർസൊക്കെ ഒന്ന് ഷ്രിങ്ക് ആവും എന്നിട്ട് കുറച്ചു നേരം ആ സ്കിന്നിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വിട്ടതിനുശേഷം മസാജിംഗ് സ്റ്റാർട്ട് ചെയ്യാം മസാജിംഗ് എന്നു പറയുമ്പോഴത്തേക്കും ഫേഷ്യലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പും സ്കിന്നിന് ഒരുപാട് ബെനെഫിറ്റ്സ് കിട്ടുന്നൊരു സ്റ്റെപ്പും കൂടെയാണ് മെസാജിംഗ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും പിഗ്മെൻ്റെഷനും ഒക്കെ മാറാനും ഡൾ സ്കിന്നാണ് ഡള്ളായിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഒരു ഗ്ലോ ഒക്കെ വരാനും ഒക്കെ വേണ്ടിയിട്ട് മസാജിംഗ് ഒരുപാട് യൂസ്ഫുള്ളാണ് അപ്പോൾ നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഷോൾഡറിലും നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഷോൾഡറിൽ മസ്സാജ് ചെയ്ത് പിന്നെ ഫേയ്സ് ഫുള്ളായിട്ട് മസാജ് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇയേർസും ഷോൾഡറും ബാക്ക് പോർഷനും വീണ്ടും ഷോൾഡറും കയ്യും ഫുള്ളായിട്ട് മസാജ് ചെയ്ത് ക്ലൈൻ്റിനെ കമ്പ്ലീറ്റായിട്ട് മസാജ് ചെയ്ത് റിലാക്സേഷൻ കൊടുത്തതിനു ശേഷം മസാജ് ആക്സെസ്സായിട്ടുള്ള മസാജിംഗ് ക്രീം എല്ലാം വൈപ്പ് ചെയ്തു കളയണം അതിനുശേഷം പിന്നെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും ഡിഫറെൻ്റ് ടൈപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ടും ഉണ്ട് ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ളതും ഉണ്ട് സ്കിൻ ടൈപ്പ് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ക്രീം കൊടുത്തുവേണം മസാജ് ചെയ്യാൻ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഓയിലി ഓയിൽ പ്രൊഡക്ട് കൊടുക്കാതെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ജെല്ല് പോലുള്ള പ്രോഡക്ട് യൂസ് ചെയ്ത് വേണം മസാജെസ് കൊടുക്കാൻ അതും സ്കിൻ ടൈപ്പ് അനുസരിച്ച് വേണം മസാജിങ്ങിൻ്റെ സമയവും പ്രഷറും കൊടുക്കേണ്ടത് ഓയിലി സ്കിന്നുകാർക്ക് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പ്രഷറിൽ കുറച്ചുസമയം മാത്രം മസാജ് കൊടുക്കണം ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പ്രഷറ് കൊടുത്ത് കുറച്ച് കൂടുതൽ സമയം മസാജ് കൊടുക്കണം കാരണം മസാജിലൂടെ ബ്ലഡ് സർക്കുലേഷനും ഇൻക്രീസ് ആവും നമ്മുടെ സെബം കൂടുതലായിട്ട് സെക്രെറ്റ് ആവും അപ്പോൾ ഏറ്റവും കൂടുതൽ സെബം സെക്രേഷൻ വേണ്ടത് ഡ്രൈ സ്കിന്നുകാർക്കാണ് സൊ അതിന് കുറച്ച് കൂടുതൽ സമയം മസാജ് കൊടുക്കേണ്ടതാണ് അതിനുശേഷം മസാജിനുശേഷം സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് എന്തെങ്കിലും സൊല്യൂഷനിൽ മിക്സ് ചെയ്ത് റോസ് വാട്ടറോ വെള്ളമോ മിൽക്കോ അങ്ങനെ എന്തിലെങ്കിലും മിക്സ് ചെയ്ത് പാക്ക് അപ്ലൈ ചെയ്തു കൊടുക്കുക ഫേയ്സ് നെക്ക് ഫുള്ളായിട്ട് പാക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡ്രൈ ആവാൻ വിടണം ഡ്രൈ ആയതിനുശേഷം വെള്ളം വച്ച് ഒരു കോട്ടൺ പാഡ് വച്ച് ഫുൾ ആയിട്ട് വൈപ്പ് ചെയ്ത് കമ്പ്ലീറ്റ്ലി ഒരു രണ്ട്മൂന്നു പ്രാവശ്യം വെള്ളം ചേഞ്ച് ചെയ്ത് ഫുള്ളായിട്ട് പാക്ക് എല്ലാം റിമൂവ് ആയതിനുശേഷം ഏതെങ്കിലും സ്കിന്നിന് സ്യുട്ടബിളായിട്ടുള്ള മോയ്സ്ച്ചുറൈസറോ മോയ്സ്ച്ചുറൈസറും സൺസ്ക്രീനും ഇട്ട് ഒന്ന് റണ്ണിങ്ങ് മസാജസ് കൊടുത്ത് പെനിട്രേറ്റ് ചെയ്ത് വിടണം അതിനുശേഷം ആഫ്റ്റർ കെയറൊക്കെ പറഞ്ഞുകൊടുക്കണം ആഫ്റ്റർ കെയറെന്ന് പറയുമ്പോഴത്തേക്കും ട്വൻ്റി ഫോർ ഹവേഴ്സെത്തേക്ക് സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ഹീറ്റ് ഒന്നും കൊള്ളാൻ പാടില്ല കെമിക്കൽ പ്രോഡക്ട്സ് മേക്കപ്പ് സോപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല സൺസ്ക്രീനും മോയിസ്ച്ചറൈസറും കമ്പൽസറിയായിട്ട് യൂസ് ചെയ്യണം ഇതൊക്കെയാണ് ആഫ്റ്റർ കെയർ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫേഷ്യലിൻ്റെ പ്രൊസീജ്യറും ആഫ്റ്റർ കെയറും ഇതൊക്കെയാണ്